കര കരകൗശല മേഖലയിലുള്ളവർ അവരുടെ കലകളിലും കരകൗശലങ്ങളിലും ഭൗതിക സ്വത്തവകാശം പകർപ്പവകാശം എന്നിവ കൈകാര്യം ചെയ്യുന്നത് വലിയ വലിയ പ്രസ്ഥാനങ്ങളും ആയിട്ട് മുന്നോട്ടു പോകുന്നവർ വലിയ രീതിയിൽ ഈ കരകൗശല വസ്തുക്കളാണെങ്കിലും കലാ കായിക കലാ സ്ഥാപനങ്ങൾ നടത്തുന്ന കേന്ദ്രങ്ങളിലാണെങ്കിലും വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഇതൊക്കെ പാലിച്ച് തന്നെ മുന്നോട്ടു പോകുന്നുണ്ട് പക്ഷെയെങ്കിൽ ചെറുകിട ചെറുതായിട്ട് പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ചെറിയ സ്ഥാപനങ്ങളായിട്ടോ വീടുകളുടെ ചുറ്റുവട്ടത്തിരുന്നോ ചെയ്യുന്നവർ ഇത് അധികം പാലിക്കുന്നതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ ചെയ്യാത്ത അനേകം പേരുണ്ട് പക്ഷേ വലിയതായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനമേഖലകളിലും ഇത് നല്ല രീതിയിൽ തന്നെ അവർ നടത്തികൊണ്ട് പോകുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അവർ കൈകാര്യം ചെയ്യുന്നുമുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്